ഞാനൊരു ന്യൂ ജനറേഷൻ മെൻ ആയത് കൊണ്ട് തന്നെ ഞാൻ എൻ്റെ കൈയിൽ എനിക്ക് കിട്ടിയ ഒറ്റ ഒരു സേവിങ്സ് എന്നത് പണ്ടത്തെ ഇരുപത്തി അഞ്ചു പൈസ എന്നതാണ് കാരണം എൻ്റെ പാരൻസ് എന്നോട് പറയും ഈ ഇരുപത്തി അഞ്ചു പൈസയുടെ വാല്യു ഇന്നത്തെ നൂറ് ഇരുനൂറ് രൂപയുടെ ആ വാല്യു ഉണ്ടെന്നും അപ്പോളതെനിക്ക് വാല്യു വാല്യുബളായിട്ടാണ് എനിക്ക് എൻ്റെ കയ്യിൽ കിട്ടിയത് ഞാനത് ശേഖരിക്കുകയും എൻ്റെ കയ്യിലിപ്പോഴും അത് വക്കുകയും ചെയ്തിട്ടുണ്ട്